അഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുവത്തി നാല് അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനാറ് പതിനാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി പതിനഞ്ച്